ഇൻഡ്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പാരിസ്ഥിക പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മളെ ചുറ്റുമുള്ള ഭൂപ്രകൃതിയിൽ തന്നെ ഈ കുന്നുകളും കാടുകളും ഇടിഞ്ഞുവീണ് എത്രയോ മനുഷ്യർ മലകളിടിഞ്ഞ് വീണ് എത്രയോ മനുഷ്യർ മരിക്കുന്നു ഓരോ റോഡുകളും പ്രദേശങ്ങളും സഞ്ചാരയോഗ്യമല്ലാതായിത്തീരുന്നു നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലേയ്ക്ക് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് മഴ കിട്ടേണ്ട സമയത്ത് വേനലും വേനൽ വരേണ്ട സമയത്ത് മഴയും തികച്ചും അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഈ കാലാവസ്ഥ അത് നമ്മുടെ ഇൻഡ്യ മുഴുവനും കാർഷിക കാർഷിക കാർഷിക കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ട് സാധനങ്ങളുടെ കൃഷിയുൽപ്പന്നങ്ങളുടെ വില എത്രയോ ഭയങ്കരമായിട്ട് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഈ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കർഷകർ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തുണ്ടാകുന്ന കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലും കർഷകർ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയങ്ങളിലുണ്ടാകുന്ന വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായിട്ട് എത്രയോ കൃഷികൾ നശിച്ചുപോകുന്നു നമ്മളൊക്കെ പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് വരുത്തി ഈ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തുന്ന പച്ചക്കറികളും സവാള ഉള്ളി ഇതുപോലുള്ള സാധനങ്ങൾക്കും ഇപ്പം ഈ സമയത്താണെങ്കിൽപ്പോലും ഒരു കിലോ സവാളയ്ക്ക് നൂറ് രൂപ വിലയാ അത്തരത്തിൽ അവിടെയൊക്കെ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത് നമ്മുടെ ഈ ഭൂപ്രദേശത്താണെങ്കിലും നമ്മൾ താമസിക്കുന്ന നമ്മളുടെ പ്രദേശത്താണെങ്കിലും കൃഷിയിടങ്ങളൊക്കെ ഒത്തിരിയേറെ നഷ്ടപ്പെടുന്ന ചുറ്റും മണ്ണൊലിപ്പും നമ്മുടെ കാലാവസ്ഥകളിൽത്തന്നെ എന്തെല്ലാം മാറ്റങ്ങളാ സംഭവിക്കുന്നത് മഴയില്ലാത്ത സമയത്ത് മഴ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് മഴ പെയ്യുന്നു പണ്ടത്തെ കർക്കിടകമാസമൊക്കെ എവിടെയോ പോയി മറഞ്ഞില്ലേ അത്രയധികം കാലാവസ്ഥ മാറിയിരിക്കുന്നു അത് നമ്മുടെ പ്രദേശത്തും ഇത് അനുഭവപ്പെടുന്നുണ്ട്